ഓക്കെ ഇടുക്കീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇടുക്കിയെന്നു പറയുമ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ്സാണ് ഇടുക്കീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഈ എൻവയൺമെൻറ്റൽ ആണ് ഫസ്റ്റ് ഞാൻ പറയാം ഉദ്ദേശിക്കുന്നത് എൻവയൺമെൻറ്റെന്നു പറയുമ്പോൾ എവിടെ തിരിഞ്ഞാലും ഫുൾ ഗ്രീൻ കുറേയെ മരങ്ങളും ചോലകളും ഫോറസ്റ്റ് ഏരിയാസും അങ്ങനെ കുറേ ഉണ്ട് അതു പോലെ തന്നെ ഈ ഒരു ഇടുക്കിയെന്നു പറയുമ്പോൾ കുറേ ടൂറിസ്റ്റ് പ്ലേസസ്സുണ്ട് ഹിഡ്ഡൺ പ്ലേസസ്സുണ്ട് പിന്നെ കുറേ പേരുടെ ജീവിതം ഫോറസ്റ്റിന് അകത്താണ് ഈ ഇടുക്കി തന്നെ കുറേ കൃഷി മേഖലകളൊക്കെ ഉണ്ട് ലൈക്ക് മൂന്നാർ പല്വാസൽ അതൊക്കെ തേയില തോട്ടത്തിൻ്റെ ഇതാ സോ അവിടെയൊക്കെ കുറേ ഇതുണ്ട് പിന്നെ സ്പൈസസ് കുറേ ഉണ്ട് പിന്നെ കുറേ ടൂറിസ്റ്റ് പ്ലേസ്സസും അങ്ങനെ കുറേ വിഷയങ്ങൾ ഈ ഇടുക്കിയിലുണ്ട് ഈ ഇടുക്കിയിലെ എൻവയോൺമെൻറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻവയോൺമെൻറ്റൽ പോസിറ്റീവായിട്ടുണ്ട് നെഗറ്റീവായിട്ടുണ്ട് ഈ പോസിറ്റീവായിട്ടുണ്ടെങ്കിലെന്നു വെച്ചാൽ പോസിറ്റീവെന്നു പറയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ആ ഒരു ഭംഗി മാത്രമല്ലാണ്ട് അത് എൻവയൺമെൻറ്റൽ എന്നു വെച്ച് കുറേ പേർക്ക് കുറേ ലാഭം കിട്ടുന്നുണ്ട് അഗ്രിക്കൾച്ചറായാലും ശരി ഒരു ടൂറിസ്റ്റ് പ്ലേസ്സായാലും ശരി അങ്ങനെ കുറേ ഉണ്ട് പിന്നെ അതു പോലെ തന്നെ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ വെച്ച് കുറേ പേർക്ക് ജീവിതവും നൽകുന്നുണ്ട് അതേ പോലെ തന്നെ അതൊരു ടൂറിസ്റ്റ് പ്ലേസായിട്ടും വരും പിന്നേ സ്പൈസസ് സ്പൈസസ്സൊക്കെ ഇവിടെ ചുമ്മ കിട്ടുന്ന സാധനങ്ങളാണ് പക്ഷേ അതൊക്കെ പുറത്തു നിന്നു വന്നു മേടിക്കുന്നെന്നു പറഞ്ഞാൽ അവർക്ക് നല്ല പൈസയും കിട്ടും എൻവയോൺമെൻറ്റൽ വെച്ചു നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇനിയും റോഡായിക്കോട്ടെ ഒരു ഷോപ്പിങ്ങായിക്കോട്ടെ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ കുറേ വളരെ

നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഈ ഒരു നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസിന് മനുഷ്യന്മാർ തന്നെയാണ് നശിപ്പിക്കുന്നത് അതായത് ആദ്യം പറയുകയാണെങ്കിൽ വേസ്റ്റ് ഈ വേസ്റ്റൊക്കെ അവർക്ക് കിട്ടുന്ന സാധനം വേസ്റ്റ് മൊത്തം അവർ കാണുന്ന സ്ഥലത്തിലിങ്ങനെ ഇട്ടിട്ട് പോകുന്നതും അതുപോലതന്നെ അത് വേസ്റ്റ് കൊണ്ടു പോയി റിവറിലോ അല്ലെങ്കിൽ ഏതെങ്കിലൊരു തോട്ടിലോ അവർ കൊണ്ടു പോയി അവരുടെ ഇഷ്ടത്തിലിടും പിന്നെ വാഹനങ്ങളൊക്കെ കൊണ്ടു പോയി കഴുകുന്നതും ഇങ്ങനെ കുറേ വേസ്റ്റൊക്കെ കൊണ്ടു പോയി ഇടുന്നൊരു പ്ലേസാക്കി റിവർ മൊത്തത്തിൽ പൊലൂട്ടായിട്ട് ഇരിക്കുന്നത് ഈ കേരള ഗവൺമെൻറ്റെന്നു പറയുമ്പോൾ ഇടുക്കിയിൽ കുറേ ഡാംസൊക്കെ കൂടുതൽ ഡാംസുള്ളത് ഇടുക്കിയിലാണ് അപ്പം ഇങ്ങനെ ഡാമൊക്കെ എല്ലാവരും സേഫ് ചെയ്യുന്ന പോലെ തന്നെ ഓരോരോ പ്ലേസും കൂടി സേഫ് ചെയ്യുന്നതുമായിരിക്കുന്നത് നല്ലത് പിന്നെന്താ പിന്നെ പറയുകയാണെങ്കിൽ പൊല്യൂഷൻസ് മനുഷ്യന്മാർ ഉണ്ടാക്കുന്ന കുറേ പൊല്യൂഷൻസ് എൻവയോമെൻറ്റലും എഫക്ട് ചെയ്യുന്നുണ്ട് ഹ്യൂമൻ ലൈഫിനെ എഫക്ട് ചെയ്യുന്നുണ്ട് ഈ ഹ്യൂമൻ ലൈഫിൽ എൻവയോൻമെൻറ്റൽ ഒരു നല്ല കാര്യങ്ങളാണ് തരുന്നത് പക്ഷേ മനുഷ്യന്മാർ അതൊക്കെ നശിപ്പിച്ച് നശിപ്പിച്ച് മൊത്തം ചീത്തയാക്കുന്ന ഓക്സിജനൊക്കെ ഓക്സിജൻ ലെവലൊക്കെ ഇപ്പം കുറയാനും തുടങ്ങി കാർബൺഡയോക്സൈഡ് കൂടുന്നുണ്ട് പിന്നേ